ഹലോ ഹലോ ഹലോ മിസ്സ് ഹലോ മിസ്സ് കേൾക്കുന്നുണ്ടോ ഞാൻ അച്ചുയെന്ന് പറഞ്ഞ കുട്ടിയിനെ ചേർത്തിരുന്നു അപ്പോൾ ക്ലാസ്സ് ടെസ്റ്റ് നടത്തി അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്നു പറഞ്ഞു

അത് ഈ നമ്പർ തന്നെയാണ്

ആ ആ വീട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്നൊക്കെയുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല

അറിയില്ല തന്നെ കളിയ്ക്കാൻ പോക്ക് ഒന്നുമില്ല വന്നിട്ട് ഹോംവർക്ക് ഒക്കെ ഉള്ളത് ചെയ്ത് വയ്ക്കും രാത്രി ആ ചെയ്യുന്നുണ്ട് ആ അറിയില്ല കേട്ടോ ഒ ഓ കളിയ്ക്കാൻ പോക്കുണ്ട് അത് ഹോംവർക്ക് ചെയ്ത് വച്ചിട്ടാണ് പോക്ക് ഫുട്ബോൾ ആണ് പോക്ക് രാവിലെ ഒരു ഏഴുമണി ആകുമ്പോൾ എണീക്കും അത് അവൻ കിടക്കുമ്പം വൈകുകയും ആ ഫോണിൽ കളിക്കും രാത്രി കുറച്ച് നേരം കളിക്കും

എപ്പോഴാണ് വരേണ്ടത് തിങ്കളാഴ്ച രാവിലെ വരണോ രാവിലെ വരണോ ഓക്കേ ഓക്കേ ശരി